നമ്മുടെ നാട്ടിലെ കലകളും കലാരൂപങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്താ വച്ചാൽ അവരുടെ തലമുറയെ അതു പഠിപ്പിക്കുകയും അവരെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു അത് നിന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു മോഹിനിയാട്ടം കളി നമ്മുടെ കഥകളി കളിക്കുന്ന കഥകളി കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ആ കഥകളി കളിക്കുന്ന ഒരു വ്യക്തി അവരുടെ മകനെ അല്ലെങ്കിൽ മകളെ അത് പഠിപ്പിക്കുകയും ആ കലാരൂപം നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നു പിന്നീട് ഉള്ളതെന്നു വച്ചാൽ അവർ ക്ലാസുകൾ ഡാൻസ് ആയാലും പാട്ടായാലും അത് ക്ലാസുകൾ ട്യൂഷൻ പോലെ വച്ചിട്ട് വേറെ പുറത്തു നിന്ന് വരുന്ന മക്കളെയെല്ലാം പഠിപ്പിച്ച് ആ അവരിലൂടെ അത് ആ കലാരൂപം സംരക്ഷിക്കപ്പെടുന്നു